ഹലോ ഹലോ ആ ആ മാം എൻ്റെ പേര് അർച്ചന എന്ന് ആയിരുന്നു മാം ഒരു വൺ വീക്ക് ആയിട്ട് എനിക്ക് വല്ലാത്ത തലവേദന കണ്ടിന്യൂസ് ആയിട്ട് വന്നു കൊണ്ടിരിക്കുന്നുണ്ട് ഒരു ആ ഞാൻ ഒരു ഒരു കൊണ്ട് ഞാൻ ഒരു ഡോളോ കഴിച്ചിരുന്നു അപ്പം അന്ന് കഴിച്ച ദിവസം എനിക്ക് നല്ല സുഖം ഉണ്ടായിരുന്നു തലവേദനക്ക് കുറവുണ്ടായിരുന്നു ബട്ട് പിന്നെ അത് വീണ്ടും വീണ്ടും ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വന്നു കൊണ്ടിരിക്കുകയാണ് ആ ഒരു ദിവസം ടാബ്ലറ്റ് എടുത്തുള്ളൂ ഇല്ല ഞാൻ ഒരു ഒരു ഒരു ടാബ്ലറ്റേ കഴിച്ചുള്ളൂ ആ ഉള്ളൂ ആ അതെ ആ അത് വീണ്ടും വന്നു ആ അന്ന് ഗുളിക കഴിച്ച ദിവസം തലവേദനക്ക് കുറവ് ഉണ്ടായിരുന്നു അടുത്ത ദിവസം വീണ്ടും ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വന്നോണ്ടിരിക്കാ പനി ഒന്നും ഇല്ല ഒന്നും ഇല്ല ഒന്നും ഇല്ല കണ്ണിൽ ഒക്കെ ചെറിയ ഒരു തലവേദന കൊണ്ടാണെന്ന് തോന്നുന്നുണ്ട് കണ്ണൊക്കെ ചില ഒരു വേദന ഉണ്ട് ചെറുതായിട്ട്

ആ അതെ അതെ ആ ഉവ്വ് മാഡം ആ സ്പെക്റ്റകിൾസ് ഞാൻ ഇപ്പോൾ യൂസ് ചെയ്യുന്നില്ല മാഡം ഞാൻ പണ്ട് നേരത്തെ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു

ഉണ്ട് അല്ലേ ആ ആ ചെക്കപ്പ് നടത്താം അല്ലേ മാഡം എല്ലാ ദിവസവും ക്ലിനിക്കിൽ അവൈലബിൾ അല്ലേ ഉണ്ട് അല്ലേ ആ അതെ അതെ അതെ മാഡം ആ അതെ മാഡം ആ ഓക്കെ മാം ഓക്കെ ആ ഓക്കെ ആ ഓക്കെ മാം ഓക്കെ ഓക്കെ ആ ആ നാളെ തന്നെ ഇറങ്ങാം മാം നാളെ ഓക്കെ ആ ഓക്കെ മാം ഓക്കെ ബുക്കിംഗ് ഉണ്ടോ മാം നേരിട്ട് ഓക്കെ അർച്ചന

ആ ഓക്കെ മാം ആ ഓക്കെ ശരി മാം ഓക്കെ താങ്ക് യു